കാലത്തിനനുസരിച്ച് നൃത്ത രീതിയിലും മാറ്റങ്ങൾ വന്നോണ്ടിരിക്കയാണ് പഴയരീതിയിൽ നിന്നും ഡാൻസിൻ്റെ സ്റ്റൈലും അതിനനുസരിച്ച് പാട്ടിനും മാറ്റം വരുന്നുണ്ട് എന്നിരുന്നാലും പാരമ്പര്യമായുള്ള നൃത്തരൂപങ്ങൾ പഠിക്കുന്നവരും അത് മത്സരയിനമായി തുടരുന്നവരും ഉണ്ട് അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് പഴയ നൃത്തരൂപങ്ങൾ തനത് സംസ്കാരത്തിൽ വിളിച്ചോതുന്നവയാണ് എന്നാൽ ഇപ്പോഴത്തെ നൃത്തരീതിയിൽ കാട്ടിക്കൂട്ടലായി പലപ്പോഴും തോന്നാറുണ്ട് അത് തീർച്ചയായും തികച്ചും വിനോദത്തിനു വേണ്ടി മാത്രമാണ് ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നത് അത്കൊണ്ട് തന്നെ പാരമ്പര്യ നൃത്തരീതി സംരക്ഷിക്കേണ്ടതായുണ്ട് കാരണം അവ ഒരു ദേശത്തിൻ്റെ സംസ്കാരത്തെപ്പറ്റിയും പാരമ്പര്യത്തെപ്പറ്റിയും വരും തലമുറയെ സ്വീകരിക്കാനായി മറ്റുള്ള ഒരു ഉപാധി കൂടിയാണ്